ഇന്ത്യൻ മാധ്യമങ്ങളെക്കുറിച്ച് എന്താ അഭിപ്രായമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അതായത് നമുക്ക് നല്ലൊരു അറിവ് കിട്ടാനും നമ്മുടെ ഇപ്പം മാധ്യമമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീ വിയുണ്ട് വാർത്തയുണ്ട് റേഡിയോ ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് എല്ലാം മാധ്യമങ്ങൾ തന്നെയാണ് പിന്നെ അതുമാത്രമല്ല റേഡിയോയിൽ എല്ലാവരും കേൾക്കൽ വളരെ കുറവാണ് കേൾക്കുന്നവരും ഉണ്ടാവും പക്ഷേ വളരെ കുറവാണ് ഇപ്പോൾ ടീ വി അല്ലെങ്കിൽ പത്രമാണ് ഇപ്പോൾ പത്രം വായിക്കുവാണെങ്കിൽ നമുക്ക് അതായത് അത്യാവശ്യം നല്ല അറിവും കിട്ടും അങ്ങനെ ഒരു ഉപകാരമുണ്ട് പിന്നെ മാധ്യമങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ അവർ ചിലപ്പോൾ പറയുന്ന കാര്യം തൊണ്ണൂറ് ശതമാനം സത്യമാണെങ്കിലും അതിൽ പത്ത് ശതമാനം കള്ളത്തരം കൂട്ടിച്ചേർക്കുന്നവരാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ അതായത് അവർക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി അവർ കൂട്ടി കൂട്ടി പറയും അതായത് ഒരു ന്യൂസ് നമുക്ക് വേറെ പെരുപ്പിച്ച് പറയാനുള്ള കഴിവ് അവർക്ക് നല്ലോണം ഉണ്ട് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളിലെ ആൾക്കാർക്ക് പിന്നെ പ്രശസ്തമായ പത്രങ്ങളൊക്കെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള മനോരമ മാതൃഭൂമി ദേശാഭിമാനി കേരള കൗമുദി കൗമുദി അങ്ങനെ ഇഷ്ടംപോലെയുണ്ട് അതുപോലെ ടീ വിയിൽ ആണെങ്കിലും ട്വൻറി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് ജയ്ഹിന്ദ് കേരള വിഷൻ വയനാട് വിഷൻ അതായത് വയനാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ളതാണ് വയനാട് വിഷൻ അത് ഓരോ ജില്ലയിലും അങ്ങനെ ഉണ്ട് അതൊരുപാട് ഉപകാരമാണ് നമുക്ക് അതായത് അറിവ് കിട്ടാൻ ഒരുപാട് ഉപകാരമാണ് ഈ മാധ്യമങ്ങൾ